നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ പല സേവനങ്ങളിൽ മേഖലകളുടെ കാര്യത്തിലും കുറച്ച് പിന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയായിട്ടാണ് ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും വലിയ രീതിയിലുള്ള അസുഖങ്ങളോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മറ്റ് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് നല്ല സൗകര്യത്തിനായിട്ട് പോകേണ്ടിയുള്ള ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉള്ളത് ആരോഗ്യമേഖലയുടെ കാര്യങ്ങളിൽ ആണെങ്കിൽ പ്രദേശത്ത് തന്നെ ഒരു പ്രാഥമിക ആരോഗ്യകേന്ദ്രമുണ്ട് അവിടെ മ ശാരീരികമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ജീവിത ശൈലി രോഗങ്ങളൊക്കെ അവിടെ നിന്ന് ചെറിയ രീതിയിൽ കണ്ടുപിടിച്ച് ആ സൗകര്യം ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മറ്റുള്ള രോഗങ്ങളുടെ കാര്യത്തിൽ ഇഷ്ടംപോലെ ആശുപത്രികൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു വലിയ രീതിയിലുള്ളൊരു മേഖലയായിട്ട് ഇവിടുത്തെ ആശുപത്രികളൊന്നും വളർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ കുറച്ചുംകൂടി അധികമായാൽ മറ്റുള്ള ജില്ലകളിലേക്കും അല്ലെങ്കിൽ അടുത്ത സംസ്ഥനത്തിലേക്കും പോകുന്ന ഒരു ശീലം അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ മേഖലയിൽ കുറച്ചുംകൂടി മുന്നേറാൻ ഈ പ്രദേശം ശ്രമിക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് മറ്റുള്ള സൗകര്യങ്ങൾ നോക്കുമ്പോൾ പട്ടണങ്ങളുടെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ ഒരുവിധം എല്ലാ രീതിയിലും പ്രദേശം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇപ്പോൾ എന്താണ് ഫോണിൽ തന്നെ ലഭിക്കുന്നൊരു കാലഘട്ടത്തിലാകുമ്പോഴേ ഓൺലൈൻ ആയിട്ടുള്ള വ്യാപാരങ്ങളും ഭക്ഷണ എന്താണ് ഭക്ഷണങ്ങളുടെ ഓർഡർ എടുത്തിട്ടുള്ള ഡെലിവറി ഒക്കെ ഈ പ്രദേശത്തും എത്തി ചേർന്നിട്ടുണ്ട് എല്ലാ രീതിയിലും എത്തിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയായിട്ട് തോന്നിയിട്ടില്ല എന്നാലും ഇതിനെക്കാളും വികസനം എത്താത്ത മേഖലകളുണ്ട് ആ രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ എത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും ആശുപത്രി കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള കച്ചവടങ്ങൾക്കുമൊക്കെ ആയിട്ടാണ് ആൾക്കാർ ടൗ പട്ടണങ്ങളിലേക്ക് പോകുന്നുള്ളത് ചെറിയ ചെറിയ കടകൾ ആണെങ്കിലും എല്ലാം പട്ടണങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് അവർ കച്ചവടം നടത്തുന്നുള്ളത് വസ്ത്രമേഖലയിൽ ആണെങ്കിലും ഒരുവിധം എല്ല രീതിയിലുള്ള വസ്ത്രങ്ങളും എല്ലാം നമ്മുടെ പ്രദേശത്തും എത്തിച്ചേർന്നിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ തന്നെയാണ് കുറച്ചെങ്കിലും പിന്നിലോട്ട് ആയിട്ടുള്ളത് അതാണ് അത്യാവശ്യമായിട്ടും വേണ്ടുന്നതും മറ്റുള്ള സൗകര്യങ്ങൾ അത്രയും അത്യാവശ്യമായിട്ടുള്ളത് അല്ലെങ്കിലും നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നേടിയെടുക്കാവുന്നതേയുള്ളു പക്ഷെ ആരോഗ്യം അങ്ങനെയുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല സാമ്പത്തികത്തിനോടൊപ്പം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ആരോഗ്യമേഖലയാണ് ഏറ്റവും മികച്ചതായിട്ട് ഓരോ പ്രദേശത്തും എത്തേണ്ടുള്ളത് അല്ലാതെയുള്ള ഗവർമെൻറ്റിൻ്റെ രീതിയിലുള്ള സഹായങ്ങൾ കൂടാതെ ഒരു വ്യക്തിയും ചെയ്യേണ്ടുന്ന കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അതായത് പരിസര ശുചീകരണം മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സമയത്തുള്ള ശുചീകരണം പ്ളാസ്റ്റിക് ഒഴുവാക്കികൊണ്ടുള്ള ജീവിത രീതി പ്ളാസ്റ്റിക് നശിപ്പിക്കാതെ കത്തിക്കാതെ അതിനെ അതിൻ്റെതായ രീതിയിൽ നിർമാർജനം ചെയ്യാനുള്ള രീതികളെ കുറിച്ച് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പിന്നെ പകരുന്ന അസുഖങ്ങളാണെങ്കില് അത് അതിന് എതിരെയുള്ള നടപടികൾ അങ്ങനെ ആവാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ കുടുംബത്തിൽ നിന്നും ആരംഭിക്കേണ്ടതുണ്ട് അതൊക്കെ അങ്ങനെയുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ കുറച്ചുംകൂടി ഓരോ ഓരോ വ്യക്തിയും ശ്രമിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്